അതെ അതെ യുവക്ഷേത്ര എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അ ആ അ ആ ആ മോനെ അതായത് യുവക്ഷേത്ര എഞ്ചിനീയറിംഗ് കോളേജ് മോനറിയാലോ ഇപ്പം കേരളത്തിൽത്തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കോളേജ് ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സംവിധാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു നൈൻറ്റി പെർസെൻറ്റേജ് എബോവ് ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ഫീസിൻ്റെ ഒരു പത്ത് ശതമാനം കിഴിവ് നമ്മൾ കൊടുക്കാറുണ്ട് ഫീസിന് പത്ത് ശതമാനം കിഴിവ് കാരണം നൈൻറ്റി പെർസെൻറ്റേജ് വാങ്ങി കഴിഞ്ഞ അത്രയും കിഴിവാണ് നമ്മളെ കോളേജ് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് അവരുടെ പഠനത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഈ നൈൻറ്റി എബോവ് വാങ്ങി എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇരുപത് ശതമാനം പെർസെൻറ്റേജ് അവരുടെ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അലവൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ

ഫീസിൻ്റെ സ്ട്രക്ച്ചർ എന്ന് പറയുന്നത് നമുക്ക് മൊത്തം പഠിച്ച് കഴിയാനുള്ളൊരു രൂപ എന്ന് പറയുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ വരും പക്ഷെ നമുക്ക് നിങ്ങളിപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിത്ര എബോവ് നൈൻറ്റി എബോവ് വാങ്ങി വരുന്നൊരു വിദ്യാർത്ഥി ആണെങ്കിൽ ലോ ലെവല് ഉള്ളൊരു വിദ്യാർത്ഥി കൂടി ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ അതായത് മൂന്ന് ലക്ഷത്തിൻ്റെ പകുതി പൈസക്ക് ഒരു ഒന്നര ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കി തിരിച്ച് പോവാം ക്ലാസ് അതെ അതെ എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും നമ്മളീ പറഞ്ഞ അതേ പ്രൊവൈഡ് ചെയ്ത അതേ സംവിധാനം തന്നെ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രിൻസിപ്പാൾ ആയിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ട് വർഷം ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ വരുന്നതിൻ്റെ മുന്നേത്തന്നെ ഈ രീതികൾ ഇവിടെത്തന്നെ ഇപ്പഴും ഈ രീതി തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് പോവുന്നത്

ആ അതെ അതെ അങ്ങനെയുള്ള കിഴിവുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഏതായാലും മോനെ നമ്മുടെ യുവക്ഷേത്ര എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിളിച്ചതിനും സംസാരിച്ചതിനൊക്കെ താങ്ക് യു എനിവേ വെൽക്കം ഈ കോളേജ് ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ